സാങ്കേതിക വിദ്യയുടെ പുതിയ അപ്ഡേഷൻസ് ഉള്ളത് കൊണ്ട് സാധാരണക്കാർക്കൊക്കെ ഇൻ്റർനെറ്റ് എളുപ്പത്തില് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ മുമ്പൊക്കെയാണെങ്കിൽ ഇംഗ്ലീഷെന്ന ലാംഗ്വേജ് മാത്രമാണ് ഇൻ്റർനെറ്റിലക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കുമത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാൽ ഇപ്പോൾ മലയാളം ഉള്ളത് കൊണ്ട് നമുക്ക് മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് റിസൾട്ട് കിട്ടും അപ്പ അത് മലയാളം ഇംഗ്ലീഷ് ഭാഷ അറിയാത്തവർക്കൊക്കെ ഉപയോഗിക്കാൻ എളുപ്പമാണ് അതുപോലെ ഇപ്പോൾ നമുക്ക് വോയിസായിട്ടും മലയാളത്തിൽ സംസാരിച്ചത് പറഞ്ഞാൽ അതിന് റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത് നമ്മളത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അത് ഇംഗ്ലീഷിലോട്ട് കൺവെർട്ട് ചെയ്തിട്ടൊക്കെ വരും ഗൂഗിൾ ട്രാൻസ്ലേറ്ററ് പോലുള്ള സംഭവങ്ങളക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ വരും അപ്പോൾ അതൊക്കെ നമുക്ക് അതുപയോഗിക്കാൻ ഭയങ്കര എളുപ്പാണ് മ മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കാൻ എല്ലാവർക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇംഗ്ലീഷ് അറിയാത്ത കൊണ്ട് അപ്പോൾ ഈ മലയ ഇപ്പോൾ എല്ലാവർക്കും മലയാളത്തിലൊക്കെ സംസാരിക്കാനാകും മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നത് കൊണ്ട് ഒരുപാട് പേര് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട് അത്യാവശ്യം എല്ലാവരും ഇപ്പോൾ മൊബൈൽ ഫോണുകളും നെറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്ന കൊണ്ട് പുതിയ പുതിയ അറിവുകളും അപ്പ്ഡേ അപ്പ്റ്റുഡേറ്റയിട്ടുള്ള കാര്യങ്ങളും അറിയാനൊക്കെ സാധിക്കുന്നുണ്ട് മലയാളത്തിലെല്ലാം കിട്ടുന്നുണ്ട് അതുപോലെ എല്ലാവർക്കും പെട്ടന്ന് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട് മലയാളത്തിലായത് കൊണ്ട് മറ്റത് ഇപ്പോൾ ന്യൂ എന്തെങ്കിലും ന്യൂസോക്കെ ആണെങ്കിൽ തന്നെ നമ്മള് വായിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും ഇൻ്റർനെറ്റിലൊക്കെ കിട്ടുന്നത് അപ്പോൾ മലയാളത്തിൽ കിട്ടുന്ന കൊണ്ട് പെട്ടന്നെല്ലാർക്കും മനസ്സിലാകും ഒരുപാട് പേരിതൊക്കെ ഉപയോഗിക്കാനും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ സോഷ്യൽ സോഷ്യൽ മീഡിയകളായ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാമ്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എല്ലാത്തിലും മലയാളത്തില് ഉപയോഗിക്കാൻ പറ്റുന്ന കൊണ്ടാണ് മലയാളത്തിൽ തന്നെ നമുക്ക് എഴുതി അയക്കാനും സന്ദേശങ്ങളയക്കാനും വായിക്കാനും എടുക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് പെട്ടന്ന് തന്നെ അപ്പ്റ്റുടേറ്റായിട്ടുള്ള കാര്യങ്ങളും ഇൻഫൊർമേഷൻസൊക്കെ കിട്ടും അറിയുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു നല്ലൊരു ഇതാണ് ഇൻ്റർനെറ്റിൻ്റെ ഒരു വളർച്ചയാണതൊക്കെ അതുപോലെ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലുള്ളതൊക്കെ നമുക്ക് ഉപയോഗിക്കാം മലയാളത്തിൽ തന്നെ അതൊക്കെ ഒരു നല്ലൊരു ഇതാണ് പുതിയ അപ്പ്ഡേഷൻസ് ആണ് ഇൻ്റർനെറ്റിൻ്റെയൊക്കെ അത് നമ്മളുടെ ഭാഷ എല്ലാവർക്കും പെട്ടന്ന് മനസ്സിലാക്കാനും ഉപയോഗിക്കാൻ നമുക്ക് സാധാരണക്കാർക്ക് നമ്മുടെ ഭാഷയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഭാഷ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്